സ്പിൻ ജെന്നി ഫ്ലൈയിംഗ് ഷട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ടാണ് തുന്നൽ വ്യവസായം വ്യവസായവൽക്കരണത്തിന്റെ ദിശയില് വ്യവസായ വൽക്കരണം ആരംഭിച്ചത് ജോൺ വാള്ട്ടറാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരുപാട് പേരുകളൊക്കെ കുഞ്ഞുന്നാള് തൊട്ട് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എറ്റവും കൂടുതല് തുന്നുകയും നെയ്യുകയും ചെയ്യുന്ന കോട്ടൻ സാധനങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണമത് ഉപയോഗിക്കാന് ഈ ഈ കാലഘട്ടത്തിലൊക്ക ഒരുപാട് തരം തുണികള് പണ്ട് കാലത്തൊക്കെ കോട്ടൻ മാത്രമേ പരുത്തി വസ്ത്രങ്ങള് അതുപോലെ തന്നെ പോളിസ്ട്രൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോള് ഒരുപാട് കളക്ഷനുണ്ട് പോളി കോട്ടൻ പട്ട് സിൽക്ക് അങ്ങനെ പേര് പോലും എനിക്ക് പറയാൻ വയ്യാത്തത്ര വിധം ഒരുപാടൊരുപാട് തുണിത്തരങ്ങള് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതിന്റെയകത്ത് ഏതുതരത്തിലുള്ള തുണി തയ്പ്പിക്കാനാണ് നിങ്ങൾക്കിഷ്ടമെന്ന് ചോദിച്ചാല് എനിക്ക് ശരിക്കും കോട്ടൻ തന്നെയാണ് കാരണം ഉപയോഗിക്കുവാനായിട്ട് എളുപ്പമാണ് തുന്നുമ്പോൾ നമ്മുടെ കൈകൾക്ക് വഴങ്ങുന്നൊരു രീതിയില് കിട്ടുന്നതും അതുപോലെ തന്നെ എന്താണ് എളുപ്പത്തില് കിട്ടുന്നത് കോട്ടൻ കൂടിയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ വേഗത്തിലും രീതിയിലും പ്രാക്ടീസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും മിഷിൻ വർക്കുകളാണ് പിന്നെ എലക്ട്രിക് മിഷിനുകൾ അതുപോലെ തന്നെ മോട്ടര് വെച്ചിട്ടുള്ള മിഷിനുകൾ അതെല്ലാം ഇപ്പോള് കൂടുതലായിട്ട് പ്രവർത്തിച്ച് വരുന്നുണ്ട് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം എന്താണ് കോട്ടൻ തുണികൾ ഉപയോഗിക്കാനും അത് തയ്ക്കാനുമൊക്കെയാണ് കാരണം അത് എന്താണ് പറയുക നമ്മളാഗ്രഹിക്കുന്ന വിധം എറ്റവും വേഗത്തില് തുന്നിയെടുക്കുന്നതിന് എല്ലാം സാധിക്കുന്നുണ്ട് ഞാനുപയോഗിക്കുന്നത് കോട്ടൻ തുണികള് തന്നെയാണ് പ്രാക്റ്റീസ് കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ലല്ലോ ഇപ്പോള് കോട്ടൻ തുണികളുടെ ഒരുപയോഗത്തിൽ നിന്നാണ് എനിക്ക് ശരിക്കുമൊരു തയ്യൽ മേഖലയിലേക്ക് ഞാനൊക്കെ കൂടുതല് എന്താണ് കടന്നുവരാൻ സാധിച്ചതും കോട്ടൻ തുണികളിലാണ് തയ്ച്ച് പഠിച്ചതുമൊക്കെ അപ്പോള് എനിക്ക് തോന്നുന്നു കൂടുതല് വഴക്കത്തില് അത് ഇത് ചെയ്യാനായിട്ട് അതായത് ആദ്യകാല പരിശീലനത്തിലൊക്കെ ഏർപ്പെടുമ്പോള് കോട്ടൻ തന്നെയാണ് ഉപയോയിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ തുന്നുകയും ചെയ്യുന്നതൊക്കെ ആ എൻ്റെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാനെനിക്കെൻ്റെ ഡ്രസ്സുകള് സ്വന്തമായിട്ട് തയ്ച്ചെടുക്കുന്നത് തന്നെയാണിഷ്ടം പ്രത്യേകം എനിക്ക് എൻ്റെ രീതികള് ഓരോരുത്തരുടെ രീതികളും സ്വഭാവവും അതൊക്കെ വ്യത്യസ്ഥമായിരിക്കുമല്ലോ അതുപോലെ തന്നെയായിരിക്കും അങ്ങനെ വ്യത്യസ്ഥമായൊരു രീതിയിലേക്കൊക്കെ അഭ്യസിക്കാനായിട്ടാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നതും കൂടുതല് ചൂട് ചൂടുള്ള മേഖലകളില് ചൂട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ കോട്ടൻ തുണികളാണ് കൂടുതലും ഞാന് സജസ്റ്റ് ചെയ്യുന്നത് കാരണം ആ അതാണെങ്കില് ഒരുപാട് വേഗം ഈർപ്പം വലിച്ചെടുക്കും നമ്മളൊരുപാട് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഒരുപാട് ഹീറ്റ് ആകാതിരിക്കാൻ നമുക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ടുപോകാനും അത് ഈ ഒത്തിരി ഇറിറ്റേറ്റഡ് ആകാതെ ഇരിക്കാനുമൊക്കെയായിട്ട് ഈ കോട്ടൻ തുണികളാണ് സാധിക്കുന്നത് പിന്നെ കോട്ടൻ തുണികളുടെ ഒരു അത് കുറവെന്ന് വെച്ചാല് അത് തയ്ച്ചെടുക്കുമ്പോള് ഒരുപാട് എന്താണ് പൊടി മൂക്കിലേക്ക് പിന്നെയത് വേഗം തന്നെ പഴയതാകാനും പിഞ്ചി പോകാനുമായിട്ട് കൂടുതല് സാധ്യതയുണ്ട് പഴയതാകുന്തോറും ഇത് പിഞ്ചി പിഞ്ചി പോകുകയാണ് ചെയ്യുന്നത് പിന്നെ ഒത്തിരിക്കാലം ഉപയോഗിക്കാന് ഇത് ലോങ് ലാസ്റ്റിങ് ആയിരിക്കുകയില്ല ആ അതുകൊണ്ട് തന്നെ കോട്ടൻ തുണിക്ക് അങ്ങനത്തെ കുറച്ച് പോരായ്മകളുണ്ട് എങ്കിലും ഞാനെപ്പോഴും പ്രിഫര് ചെയ്യുന്നതും ഞാന് കൂടുതല് ആശ്രയിക്കുന്നതും ഞാന് കൂടുതല് ഉപയോഗിക്കുന്നതും ഈ കോട്ടൻ തുണികള് തന്നെയാണ്